ഞാൻ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ നീന്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ നല്ല രീതിയിൽ നീന്തി ഉൽ ഒരു ഉല്ലാസവമായിട്ട് തന്നെയാണ് നീന്തലിനെ ഞാൻ കണ്ടത് നീന്തി സ്കൂളിൽ നിന്നു വരികയും വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ ഉടനെ നമ്മൾ ആറ്റിലേക്കു ചാടി നീന്തി കളിക്കുകയും നീന്തൽ സംബന്ധമായിട്ട് നല്ല ബന്ധവും അതൊരു പ്രത്യേക ഒരു സുഖമായിട്ടാണ് ഒരു സന്തോഷമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നീന്തൽ നല്ലൊരു കലയായിട്ടു തന്നെ ഞാൻ മുന്നോട്ടു കൊണ്ടു പോകുകയും ചെയ്തു നീന്തുന്നത് നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് ശാരീരികമായും നല്ല ഒരിതുള്ളതാണ് നീന്തൽ